പല പ്രാചീന കലാരൂപങ്ങളും ഇന്ന് സ്കൂൾ യുവജനോത്സവങ്ങളിൽ മാത്രം കാണപ്പെടുന്നയൊരു കോമ്പറ്റീഷനൈറ്റംസായി മാറിക്കൊണ്ടിരിക്കുന്നു അതിനെക്കുറിച്ചിപ്പല്ലാ എല്ലാര് ഞാനും ഒന്നും തന്നെ അവർക്കല് എങ്കില് അത് കോമ്പറ്റീഷനിൽ മത്സരിക്കേണ്ടത് ആവശ്യം ഉള്ളതുകൊണ്ട് അവര് പഠിക്കുന്നു അതവിടെ അവതരിപ്പിക്കുന്നു അത് മാത്രമാണ് സംഭവിച്ച് കൊണ്ടിരിക്കുന്നത് ഇന്ന് ഒരു സാധാരണയായൊരു മാർഗ്ഗം ചവിട്ടുനാടകം പോലും ഇന്ന് സ്കൂൾ യുവജനോത്സവങ്ങളിലവതരിപ്പിക്കുന്ന മാത്രം ഒരു കലാരൂപമായി മാറിക്കൊണ്ടിരിക്കുന്നു ഇത് അല്ലാതെ ഓരോ കുട്ട് അതിനെക്കുറിച്ച് അഗാധമായൊരു ജ്ഞാനമോ ആർക്കും തന്നെ അതിനെക്കുറിച്ചൊരു പഠിക്കുവാനുള്ളൊരു താൽപര്യമോ പോലുമില്ല സ്കൂൾ യുവജനോത്സവങ്ങളിൽ കളിക്കുന്നു ക്കണം അതിന് പ്രൈസ് മേടിക്കണം അതിന് വേണ്ടി മാത്രമാണ് അവരത് പഠി പഠിക്കുന്നത് തന്നെ അവിടെ അവതരിപ്പിക്കുന്നു അതവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇടത്തും അതവതരിപ്പിക്കേണ്ടിയതായി വരുന്നില്ല അതുപോലെ ഉണ്ട് ഇന്ത്യയിലെ പല കലാരൂപങ്ങളും എ എവിടേലും മത്സരങ്ങളുണ്ടങ്കിൽ അവിടേക്ക് വേണ്ടി മാത്രം ആയിട്ട് അത് പർ അ പഠിക്കുന്നു അവതരിപ്പിക്കുന്നു അല്ലാതെ അതിനേക്കുറിച്ച് ഒരു ജ്ഞാനമോ ഉപയോ അതിൻറ്റെ ഉപയോഗങ്ങളോ ഒന്നും തന്നെ ആരും സാധ്യമാക്കുന്നില്ല എല്ലാ ഇടത്തും അവ് എല്ലായിടത്തും എൻ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടങ്കിൽ മാത്രമാണ് അല്ലാതെ ഒരു കലാരൂപങ്ങളും ഇന്ന് ത്തെ കുട്ടികൾ അവരുടേതാ അതിൻ്റെ ആഴത്തിലിറങ്ങി പഠിക്കുകയോ അതിൽ നിന്നും അതിനെ സംരക്ഷിക്കാൻ വേണ്ടി പഠിക്കുകയോ ഒന്നും തന്നെ ആരും തന്നെ ചെയ്യുന്നില്ല എല്ലാം രൂപം എല്ലാ അവനവൻ മത്സരങ്ങൾക്ക് വേണ്ടി മാത്രമായി മാറിക്കൊണ്ടിരിക്കുന്ന രീതിയിലേക്ക് വന്നുകഴിഞ്ഞു എല്ലാ രൂ കലാരൂപങ്ങൾ ക്കും അതിൻ്റെതായ പ്രാധാന്യം കൊടുത്ത് ഇന്നത്തെ സമൂഹത്തിലത് വളർത്തിയെടുക്കുവാനായിട്ട് ആരെങ്കിലും ഒക്കെ തന്നെ ശ്രമിച്ചുവെങ്കിൽ മാത്രമേ ഈ കലാരൂപങ്ങൾ നല്ല രീതിയിൽ അവതരിക്കപ്പെടുകയോ സംരക്ഷിക്കപ്പെടുകയോ ചെയ്യുള്ളു അല്ലാത്ത പക്ഷം ഈ കല കുറേ വർഷങ്ങൾക്കു ശേഷം അസ്തമിക്കുക തന്നെയാണ് ചെയ്ത് കൊണ്ടിരിക്കുന്നത് എല്ലാ കലാരൂപങ്ങൾക്കും അതിൻ്റേതായ പ്രാധാന്യം നൽകി അത് വളർത്തുവാനായിട്ട് ശ്രമിച്ചെങ്കിൽ മാത്രമേ അത് സാധിക്കയുള്ളു അല്ലാത്ത പക്ഷം അത് ആ ഒരു പ്രത്യേക രീതിയിലേക്ക് പ്രത്യേക പ്രദേശത്തേക്ക് തന്നെ ഒതുങ്ങുകയും അവിടുത്തെയുള്ള ആ കലാകാരൻമാർ അത് നിർത്തുന്ന രീതിയിലേക്ക് അതു മാറുകയും ചെയ്യ പ്പെടുന്നു അല്ല അതാ ഒരു കുറച്ചാൾക്കാർ മാത്രം ഒതുങ്ങപ്പെടുകയും ചെയ്യും അത് അല്ലാത്ത പക്ഷം ഒതുങ്ങപ്പെടുകയും ചെയ്യുന്നു അതാ തലമുറ കഴിയുമ്പോഴതവിടെ അസ്തമിക്കയും ക്കയും ചെയ്യുന്നു